മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ധർമ്മം പാലിക്കുന്നുണ്ട് പക്ഷെ ചില ന്യൂസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല അത് വരുമ്പോൾ മാത്രമായിരിക്കും ആ ഒരു ആഴ്ച് ഭയങ്കര ആളിപ്പടരുന്നതുപോലെ ന്യൂസായിരിക്കും അതു കഴിഞ്ഞാൽ അത് അതു കെട്ടണ്ടങ്ങി അതിനെക്കുറിച്ച് പിന്നെ ഒരു സംസാരം ഒന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ന്യൂസുകൾ ശരിയായ വസ്തുതകൾ അവതരിപ്പിക്കാറുണ്ട് ആവിശ്യ സ്ഥലത്ത് ന്യൂസുകാർ ഇടപെടാറുണ്ട് ചില മധ്യപ്രവർത്തകരാണ് ചിലവരെ വലിയ ആൾക്കാരാക്കുന്നത് അതേ മാധ്യമ പ്രവർത്തകരാണ് അവരെ താഴെ ചവിട്ടി മെതിക്കുന്നതും അവരാണ് അങ്ങനെ ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മലയാള മനോരമ ന്യൂസ് ഐയ്റ്റീൻ മാതൃഭൂമി പിന്നെ കൈരളി ന്യൂസ് ഇതൊക്കെ ഞാൻ ഈ ടെലിവിഷനിലും ന്യൂസ്പേപ്പറിലും മാത്രം പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ്സ് ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ഒരു ഇത് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയായാണ് പിന്നെ ഇപ്പോൾ ഒട്ടനവധി ചാനലുകളുണ്ട് ഫ്ളവേഴ്സുണ്ട് അതിൽ ന്യൂസിൻ്റെ ഇതുണ്ട് ഇപ്പോൾ ന്യൂസ് നമുക്ക് ഇപ്പോൾ ഓൺലൈൻ മാധ്യമം ഉള്ളതുകൊണ്ട് ഫോൺ ഉള്ളതു കൊണ്ടും ന്യൂസ് നമുക്ക് പെട്ടന്ന് പെട്ടന്ന് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും അന്നും ഇന്നും ഇഷ്ടം മലയാള മനോരമ ഒക്കെയാണ് പിന്നെ ദ്വീപിക മാതൃഭൂമി അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇഷ്ടം